ഇന്നത്തെക്കാലത്ത് കേരളത്തിലേറ്റവും കൂടുതല് പണി പണികൾക്കും മറ്റുമൊക്കെയായിട്ട് അഥിതി തൊഴിലാളികളാണ് വരുന്നത് ബംഗാളികളാണ് കൂടുതലും ബംഗാളി ഛെ ബംഗാളിൽ നിന്ന് സംസ്ഥാനത്തിൽ നിന്നാണ് കുറേ പേര് വരുന്നതും അവിടെ ബംഗാളിയൻ ബംഗാളിയൻ ഭാഷയാണ് അവര് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ആ ഇന്ന് ബംഗാളികൾക്ക് ഏറ്റവും കൂടുതൽ പറയണത് മലയാളമാണ് കാര്യം അവരുടെ അവർക്ക് ജീവിക്കണമെങ്കിൽ മലയാളം വേണം എന്നൊരു അവസ്ഥയായതിനാൽ അവര് മലയാളമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അപ്പോൾ ബംഗാളി ഭാഷയും ബോഡോ ബംഗാളി പ്രദേശത്തെ ഭാഷകളുമായിട്ട് മലയാളത്തിന് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും ബംഗാൾ എന്ന സ്ഥലത്ത് എന്ന് വന്ന ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നത് മലയാളമാണല്ലോ അതുകൊണ്ട് തന്നെ അവരുടേയും ഒരു സ്വന്തം ഭാഷയായ് തീർന്നിരിക്കുകയാണ് മലയാളം അങ്ങനൊരു ബന്ധം മലയാളവും ബംഗാളിയും എന്ന ഭാഷയിൽ ഉണ്ട് അതുകൊണ്ടുതന്നെ ബംഗാളി ഭാഷയും മലയാളം ഭാഷയും ഇപ്പോൾ ഒരേ തോതിലാണ് ബംഗാളികൾ ഉപയോഗിക്കുന്നത് ബംഗാളിലെ ആൾ ജനങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം കേരളത്തിലുള്ളവർക്ക് സംസാരത്തിനും മറ്റു കാര്യങ്ങൾക്കും മലയാളം ഉപയോഗിച്ചേ പറ്റുള്ളു അതുകൊണ്ട് തന്നെ അവര് മലയാളത്തിൽ വളരെ നല്ല രീതീയിലവർ മുന്നോട്ട് വന്നിരിക്കുകയാണ് മലയാളം സ്വന്തം ഭാഷയായി അവര് കരുതി സ്വന്തം മാതൃഭാഷപോലെ അവർ സംസാരിക്കാൻ തുടങ്ങി മലയാളികളേക്കാളും നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ബംഗാളികൾ ഉണ്ട് എത്ര എത്ര നല്ല കാര്യങ്ങളാണതൊക്കെ അങ്ങനെ നമുക്ക് പറയാം ബംഗാളി ഭാഷയുമായിട്ട് മലയാളത്തിന് എന്താ ബന്ധം ചോദിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് പറയാം ബംഗാളികൾ വളരെ മനോഹരമായ് മലയാളം സംസാരിക്കുന്നവരുടെ കാശ് കാര്യം വന്നപ്പോൾ അതൊരു നല്ല ബന്ധമാണല്ലോ